ഹലോ ക്ലിനിക്ക് അല്ലേ ആ ഡോക്ടറെ എനിക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഇല്ല ഇന്നലെ രാത്രി ചെറുതായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇപ്പോഴും നെഞ്ചുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കയ്യിലേക്കും ചെറുതായിട്ടൊരു പെയ്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല ഇപ്പോൾ രണ്ടു ദിവസമേയായിട്ടുളളൂ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല എനിക്ക് പണിത്തിരക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആ ഡോക്ടറിനെ കാണിക്കാനും പറ്റിയില്ല അപ്പം ഇന്ന് ഇങ്ങനെ ചെറുതായിട്ട് വേദന ഉള്ളകൊണ്ടാ ഞാനൊന്ന് ജസ്റ്റ് വിളിച്ച് നോക്കിയത് ആ അത്യാവശ്യം ഭാരമേയുളളൂ ഞാൻ ഇപ്പോൾ ഇവിടെ കെട്ടുപണിയാണ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഭാരമുള്ള പണിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണോ എന്ന് അറിയില്ല ഭയങ്കരമായിട്ട് വേദന ഉണ്ട് ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ടെൻഷൻ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇപ്പോൾ മോളുടെ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് ക്യാഷ് ഒക്കെ ചിലവായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്നു അറിയില്ല സംഭവം വരേണ്ടി വരുമല്ലേ ആ ആ ആ ആ

ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതിന് ആ അതിനിപ്പോൾ നമ്മൾ മരുന്ന് എന്തേലും കഴിച്ചാൽ മതിയോ അതോ എന്തേലും സർജറിയോ കാര്യങ്ങളോ ചെയ്യേണ്ടി വരുമോ ആ ഓക്കെ ആ അല്ല തോന്നൽ അല്ല എനിക്ക് ചെറുതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ഗ്യാസിൻ്റെ ആണോയെന്ന് അറിയില്ല അതുകൊണ്ടാ പിന്നെ ഞാൻ കാണിക്കാത്തത് പിന്നെ ഭയങ്കര വേദനയായതുകൊണ്ട് ഒന്ന് വിളിച്ചതാ ഇ സി ജി അടിച്ച് നോക്കണമല്ലേ ഓക്കെ

ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ ഞാൻ കാണിച്ചിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരാം എന്നാൽ ഓക്കെ ആ ആ

ഓക്കെ ഡോക്ടർ